മൃഗങ്ങളെ മൃഗങ്ങളെ പ്രകൃതി മനുഷ്യനും ജീവിയാണ് അത് നമ്മൾ നല്ലവണ്ണം പരിപാലിച്ചു അതിൽ നമ്മൾ നമുക്ക് അതുപോലെ അതിങ്ങളെ നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കാൻ പറ്റും മൃഗങ്ങൾ ഏറ്റവും നല്ല നമ്മളോട് അടക്കുന്നൊരു അടുക്കുന്നതാണ് മൃഗങ്ങളെയാണ് നമ്മൾ കൂടുതൽ അതിന് കേറ് ചെയ്യുമ്പോൾ അതിന് ഇങ്ങോട്ട് നമ്മളോടും കറിങ്ങ ഉണ്ടാകും നല്ല നല്ല ഭക്ഷണം നല്ല ശുചിത്വത്തിൽ നമ്മൾ മൃഗങ്ങളെ വളർത്തുകയാണെങ്കിൽ നല്ലൊരു ഒരു നല്ല ഒരു ഇത് മൃഗങ്ങളമായിട്ടുള്ള ഒരു നല്ലൊരു ഇത് നമുക്ക് കിട്ടും മൃഗങ്ങൾ മൃഗങ്ങളെ നമ്മൾ പരിപാലിക്കുന്നതിലൂടെ നമുക്ക് സ്നേഹം മൃഗങ്ങളോട് സ്നേഹവും വാൽസല്യവും നമുക്ക് പ്രകടി പ്പിക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ നമ്മൾ മൃങ്ങളെ സ്നേഹിക്കണം കോഴി ആയാലും പട്ടി ആയാലും എല്ലാത്തിനും നമുക്ക് സ്നേഹിക്കാൻ ഒരു സൻമനസ്സ് ഉണ്ടാകണം പിന്നെ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടുകളിൽ വളർത്തുന്നത് പൂച്ച പട്ടി പശു കോഴി ആട് എല്ലാമാണ് മൃഗങ്ങളിൽ നമ്മൾ നല്ലതായിട്ട് നോക്കുക പശുവിനെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങോട്ടും ഒത്തിരി നമ്മൾ അങ്ങോട്ട് നോക്കുന്ന പോലെ തന്നെ മൃഗങ്ങൾ നമുക്ക് ഇങ്ങോട്ടും നമുക്ക് ഒത്തിരി പാലായാലും പശുക്കളാണെങ്കിൽ പശു ആണെങ്കിൽ നമുക്ക് പാലും തൈരും എല്ലാം നമുക്ക് കിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളെ നമ്മൾ പരിപാലിക്കുന്നത് അത്രയും നല്ലതാണ് മൃഗങ്ങൾ നമ്മൾ നമ്മളോട് മനുഷ്യരുമായിട്ട് പെട്ടെന്നാണ് ഇഴുകിച്ചേരുന്ന ഒരു മൃഗമാണ് നമ്മൾ അങ്ങോട്ട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നൊ അതുപോലെ അതുങ്ങൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും മൃഗങ്ങൾ നമ്മൾ ഉദാഹണത്തിന് ആടിനെയും പശുവിനെയുമൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അതുപോലെ അതിനെ പരിപാലിക്കുകയും എല്ലാം ചെയ്യുമ്പം നമക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൃഗങ്ങളും നമുക്ക് പാലാണെങ്കില്ലാം നമുക്ക് പശുവൊക്കെ തരും അതുപോലെ തന്നെ പൂച്ചകൾ പട്ടി എല്ലാം നമ്മള വീട് പട്ടിയായാലും നമുക്ക് വീടിന് കാവലും എല്ലാ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ പൂജക്ക് ആണെങ്കിലും അധികം ലാളന കൊടുത്തില്ലേലും അതിനാൽ നമ്മൾ ഒ മുൻക മുൻകൈെയ്യെടുത്ത് ലാളിക്കുന്നതും നല്ലതാണ് മൃഗങ്ങളെ നമ്മൾ എത്ര മാത്രം പരിപാലിച്ചു വളത്തുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് നമുക്ക് കിട്ടും എല്ലാ എല്ലാ മൃഗങ്ങളും ഒരുപോലെ അല്ല എന്നാലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ അതിൻ്റൃതായിട്ട രീതിയിൽ നമ്മള് അവർ മൃഗത്തിന് പരിഗണന കൊടുക്കേണ്ടതാണ് എല്ലാ മൃഗങ്ങളും നമ്മളെ ഒരുപോലെ സ്നേഹിക്കാനും അതിൻ്റെതായിട്ടുള്ള കരുതലും കൊടുക്കണമെന്ന് ഓർമിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മളെത്രത്തോളം മൃഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മനുഷ്യ സ്നേഹങ്ങൾ മനുഷ്യന് സ്നേഹം പ്രകടിമാക്കാൻ പറ്റും നമ്മൾ എങ്ങനെ നമ്മളൊരു മനുഷ്യനോട് പെരുമാറുന്ന മൃഗങ്ങളോട് നമ്മള് പെരുമാറുന്ന പോലെ അല്ലാം നമ്മൾ മനുഷ്യന് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരെ നമ്മുടെ സഹജീവികളോട് പെരുമാറന്നത് പോലെ തന്നെ നമ്മൾ മൃഗങ്ങളോടും കരുണ കാണിക്കണം